ഇരുനൂറ്റി എഴുപത്തി മൂന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് അഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് എഴുപത്തി അഞ്ചായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഏഴ് ലക്ഷത്തി എൺപത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ്